ഞങ്ങളുടെ പ്രദേശമെന്ന് പറയുമ്പോൾ എന്റെ വീടിനൊക്കെ തൊട്ടടുത്താണ് ആറമ്മുള വരുന്നത് ആറമ്മുള കല കരകൗശല വസ്തുക്കളെന്ന് പറയുമ്പം കൂടുതലും ഞങ്ങൾക്ക് ആറമ്മുള കണ്ണാടിയാണേറ്റവും എല്ലാർക്കുമറിയാവുന്നതായിട്ടുള്ളത് ആറമ്മുള കണ്ണാടിയാണ് അതൊരു വലിയ ക്രാഫ്റ്റ് തന്നെയാണ് അതെന്ന് പറയുമ്പോൾ രണ്ട് ലോഹങ്ങൾ ഒരു പ്രത്യേക പ്രൊപ്പോഷനിൽ ഉരുക്കി ഉണ്ടാക്കി അത് ഒരു മിറർ പ്ലെയിൻ മിററ് പോലെയാക്കിയെടുക്കുന്നൊരു പരിപാടിയാണ് അപ്പം അത് വർഷങ്ങളായി പാരമ്പര്യമായി ചെയ്തുവരുന്ന ആളുകൾക്ക് മാത്രമേ അത് സാധ്യമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ആറമ്മുള കണ്ണാടി ഇത്രയും വ്യത്യസ്ഥമായിട്ട് നിൽക്കുന്നത് മറ്റു കണ്ണാടികളിൽ നിന്നും കാരണം മെറ്റലാണ് അപ്പോൾ അതിന്റെ ലഭ്യതയെന്ന് പറയുമ്പോൾ അതിന്റെ മെറ്റലിന്റെ കാര്യങ്ങളുമതിന്റെ ലഭ്യതയുമൊക്കെയായിട്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവടത്തന്നെയായിരിക്കും അവരിത് ഉണ്ടാക്കുന്നതും അപ്പം ഈ മെറ്റലിന്റെ ലഭ്യതയ്ക്കൊക്കെ വളരെ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം പല ദൂര സ്ഥലത്ത് നിന്നും അതിനുവേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസൊപ്പിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടൊത്തിരി കഷ്ടപ്പെടാറുണ്ട് അതിന് സബ്സിഡികളെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ നെറ്റിപ്പട്ടം പിന്നെയുള്ളത് നെറ്റിപ്പട്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെറ്റിപ്പട്ടത്തിന്റെ കാര്യമാണെങ്കിലും നെറ്റിപ്പട്ടത്തിന് ഉണ്ടാക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് ഇവിടെ കാണാം അപ്പം അവർ അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സ് മുത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൃശൂരൊക്കെപ്പോയി കളക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആക്ച്വലി ഉള്ളത് കാരണം ഇവിടെ ഇവിടെയുള്ളതെന്ന് പറയുമ്പം വളരെ കുറവുമായിരിക്കും എമൗണ്ട് കുറവുമായിരിക്കും അതുപോലെത്തന്നെ വളരെ വില കൂടുതലുമായിരിക്കും അപ്പം അതുകൊണ്ട് അത് നമുക്ക് ലാഭം കാണില്ല അത് വാങ്ങിച്ചുണ്ടാക്കിയ നമുക്ക് നെറ്റിപ്പട്ടത്തുനിന്ന് ഒരു ലാഭം നമ്മുടെ നമ്മൾ ഇരുന്ന സമയത്തിനോ ഒന്നിനും ഒരു ലാഭവുമുണ്ടാവാത്തതിനാൽ തൃശ്ശൂർ വരെയൊക്കെ പോയി തൃശ്ശൂർ പോയി അവിടെയുള്ള മാർക്കറ്റുകളിലും ചന്തകളിലുമൊക്കെച്ചെന്ന് കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നാൽ മാത്രമേ ഇതിന് വേണ്ടിയിട്ടുള്ള പല പല സാധനങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇന്ന സാധനം എന്ന് തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മാറ്റിയിടാനൊ അങ്ങനെയൊന്നും പറ്റത്തില്ല പരമ്പരാഗത രീതിയിൽ മാത്രമെ ഈ ആറമ്മുള കണ്ണാടിയാണെങ്കിലും നെറ്റിപ്പട്ടമാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളു സൊ അതിനു വേണ്ടിയിട്ടുള്ള ആ ആ ആ പ്രത്യേക സാധനങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അപ്പം ഈ സ്ത്രീകളൊക്കെ ഒന്നുകിൽ ഈ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് ഒന്നൊ രണ്ടോ പേർ പോയി ഈ സാധനങ്ങൾ മുഴുവൻ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സ് മാർഗത്തിലൊ മറ്റൊ അതായിരിക്കും കൂടുതൽ നമുക്ക് ലാഭം അല്ലാതെ നമുക്ക് സ്വന്തമായി വണ്ടിയെടുത്തുകൊണ്ട് പോകുന്നയൊന്നും ഇത് ഈയൊരു ലാഭമുണ്ടാക്കത്തില്ല അതുകൊണ്ട് ബസ്സുകളിലോ അങ്ങനെയുള്ള വണ്ടികളിൽ പോയി ഇത് ഒരു കൂട്ടമായി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാൽത്തന്നെ അവിടെ വാങ്ങുന്ന വിലയല്ല ഇവിടെ വിൽക്കുമ്പോൾ വരുന്നത് വളരെയധികം വിലക്കുടുതലാണ് അതുപോലെതന്നെ ഇതിന്റെയൊക്കെ ഒരു മാർക്കെറ്റെന്ന് പറയുമ്പം ഒരോണം സമയത്തൊക്കെയാണ് വരുന്നത് ആ സമയത്ത് മാത്രമേ ഉള്ളു സോ അത് അല്ലാത്ത സമയങ്ങളിൽ ഇത് വാങ്ങാൻ അധികം ആളുകൾ ഉണ്ടാകും പക്ഷെ വളരെ കുറവായിരിക്കും ഓണം സമയത്താണിത് കൂടുതലായിട്ട് ആളുകൾ വാങ്ങുന്നതായി കണ്ടുവരുന്നത് ഉത്സവ സമയത്തും അങ്ങനെയുള്ള സമയങ്ങളിലാണ് പ്രത്യേകിച്ച് ഈ ആറന്മുള കണ്ണാടിയെന്നൊക്കെ പറയുമ്പം കുറച്ചൊക്കെ നല്ല വിലയുള്ള സാധനമാണ് നെറ്റിപ്പട്ടമാണെങ്കിലും നല്ല വിലയുള്ള സാധനമാണ് സൊ ആളുകൾ വാങ്ങുന്ന ഫ്രീക്വൻസി കുറവാണ് വളരെ വല്ലപ്പോഴുമൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഒരിക്കൽ ഒക്കെ ആയിരിക്കും ഒരു മനുഷ്യൻ ഇത് വാങ്ങുന്നത് ഒന്നൊ രണ്ടൊ വട്ടമേ വാങ്ങാൻ സാധിക്കുകയുള്ളു അത്രയും വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും ഇതൊരു ലാഭമുണ്ടാവാൻ വേണ്ടി പരമ്പരാഗതമായ ഒരു പല പല ജനറേഷൻസായിട്ട് ഫോളൊ ചെയ്തു വരുന്നതായതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സബ്സിഡിയൊക്കെ കിട്ടണം എന്നുള്ളത് അതൊരു കിഴിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുള്ളത് വളരേ അത്യാവശ്യവായ ഒരു കാര്യമാണ്